എനിക്ക് അങ്ങനെ ഉയരങ്ങളിലുള്ള ഉയരങ്ങളെ പേടിയുള്ള ഒരാൾ അല്ല ഞാൻ വീടിന്റെ ടെറസിലൊക്കെ വീടിന്റെ ടെറസിലൊക്കെ കയറി താഴേക്ക് നോക്കുമ്പോൾ ഒന്നും ഒരു പേടിയും തോന്നാറില്ല പക്ഷെ മൂന്നാറിലൊക്കെ പോയപ്പോള് അവിടെയുള്ള മല അവിടുത്തെ മലന്റെ മുകളിൽ കയറി താഴോട്ട് നോക്കിയപ്പോൾ എന്തോ ഒരു പേടി പോലെയാണ് തോന്നിയത് അന്ന് ഞാൻ സ്കൂളില് നിന്ന് ഒരു ടൂറ് പോയപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അവിടെ ഒരു വലിയ മലയിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ തലക്ക് എന്തോ ഒരു പോലെ ഭയങ്കര പ്രയാസമൊക്കൊ തോന്നി അപ്പോൾ അത് കാരണം എന്താൽ എന്താണെന്നറിയോ ഞാൻ ഇപ്പം താഴേക്ക് വീഴുമോ വീണ് വീണു കഴിഞ്ഞാൽ പിന്നെ ഞാന് മരിക്കുമോ ഒക്കെ ഒരു പേടി തോന്നി പിന്നെ തൂക്കുപാലത്തിലൂടെ പോവാന് നല്ല ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ കേട്ടൊ അത് ഇങ്ങനെ ആടി ആടി ആടി നടന്ന് പോവുമ്പോൾ അത് നല്ല ഒരു വല്ലാത്ത ഒരു രസമാണല്ലോ തൂക്ക് പാലം അത് നല്ല ഇഷ്ടമായിരുന്നു പിന്നെ വയനാട്ടിൽ ഒരു ഗുഹ കാണാന് പോയിരുന്നു ആ പക്ഷെ അവിടെ അവിടെ ഇഷ്ടപ്പെടില്ല എന്ന് എന്നോട് ആരോ പറഞ്ഞിരുന്നു കേട്ടൊ അവിടെയൊക്കെ കയറും കുറേ കയറി പോവണം അതുമല്ല കയറി പോവാൻ ആണെങ്കിൽ അങ്ങനെ സ്റ്റെപ്പോ ഒന്നും പ്രത്യേകിച്ച് ഇല്ല ഒരു കെതി കെട്ട സ്ഥലമായിരുന്നു സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഗുഹ കാണാന് പോവാൻ പേടിയായിനു ആ ഗുഹ പോയിട്ടില്ല കാണാന് പോവാന് പേടിയാണ് പിന്നെ അടുത്തുള്ള ഞങ്ങളുടെ അവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് മിനി ഊട്ടി അവിടെ ഉണ്ട് ഒരു ഗ്ലാസിന്റെ പാലം അവിടെ പോയത് കൊണ്ട് ആ പാലത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ചുറ്റിനുമുള്ള എല്ലാ സ്ഥലങ്ങളും നല്ല ഭംഗിയായിട്ട് കാണാം നല്ല രസമാണ് അവിടെ കയറി കാണാൻ കുറേ കാഴ്ചകൾ കാണാന് പറ്റും പിന്നെ ഞാൻ എന്റെ വീട്ടിന്റെ അടുത്തുമുണ്ട് ഒരു വലിയ ഒരു പാറക്കെട്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു പാറയാണ് ആ പാറൻ്റെ മുകളിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ രണ്ട് കൈയും കാലൊക്കെ കുത്തി കൈയൊക്കെ കുത്തി അങ്ങനെ ഒക്കെ നല്ല ഉയരമുള്ള സ്ഥലമാണ് അവിടെ കയറി കഴിഞ്ഞാൽ നല്ല രസമാണ് അവിടുത്തെ കാഴ്ച കാണാൻ കയറാന് ഭയങ്കര പേടിയാണ് എന്നാലും കയറാൻ കയറാന് തോന്നുകയും ചെയ്യും അതുപോലെ തന്നെ ഇറങ്ങി വരാന് നമ്മൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇറങ്ങി ഇരുന്നൊക്കെ കിയിഞ്ഞു പോരണം അത്രക്കും നല്ല പേടിയാണ് കാണാന് രസവും ആണ്